മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പം ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വളരെ മോശമാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ശുചിത്വം ഉണ്ട് മിക്ക ഇടവും വൃത്തിയാക്കുന്നും ഉണ്ട് ഇല്ല എന്ന് ഒന്നും നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചില ബാത്ത് റൂമുകൾ വളരെ വൃത്തി രഹിതമായിട്ടാണ് കിടക്കുന്നത് അതുപോലെത്തന്നെ ആശുപത്രികളുടെ പരിസരം നോക്കുകയാണെങ്കിൽ വളരെ മാലിന്യം നിറഞ്ഞ പരിസരമാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കനാലിലേക്കാണ് ഇവരീ വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഒഴുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കനാൽ കിടക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതേപോലെത്തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പോൾ കുറേ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പം തീർത്തും അബദ്ധമാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളുമെല്ലാം ഉണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരില്ല പലപ്പോഴും ഡോക്ടർമാരുടെ കുറവ് നമ്മൾ നേരിടുന്നുണ്ട് ഒരുപാട് നേരം ക്യൂ നിൽക്കണ്ട സമയ ആവശ്യങ്ങൾ വരുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാലോ ചിലവ് ഒടുക്കത്തെ ചിലവാണ് നമ്മളെ നമ്മൾ ഒരു പനി ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടി എക്സറേ മുതൽ എല്ലാ സംവിധാനങ്ങളും എടുപ്പിക്കാനുള്ള സകല പരിപാടികളും അവർ ചെയ്യും നമ്മളെ എങ്ങനെ മുടിപ്പിക്കാം എന്ന് മാത്രമേ അവർ നോക്കുകയുള്ളൂ ഒരുപാട് മെച്ചപ്പെടുണ്ട് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് ഒരുപാട്